പത്ത് പതിനൊന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് ആറ് എട്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പതിനാറ് രണ്ട് രണ്ടായിരത്തിപ്പതിനേഴ് ഇരുപത് ആറ് രണ്ടായിരത്തിപ്പതിനെട്ട് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തിയിരുപത്തി മൂന്ന്